ഹലോ ആ ഹലോ ആ ഇത് ഗ്യാസ് ഏജൻസിയല്ലേ ആ ആ എൻ്റെ പേര് അശ്വതി എന്നാണ്

ഞാൻ വാഴവറ്റയിൽ നിന്ന് വിളിക്കുന്നത് അപ്പോൾ ഞങ്ങങ്ങളാദ്യം പനവരത്തായിരുന്നു താമസിച്ചത് ആ ആ അതെ അതെ അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് വാഴവറ്റയ്ക്ക് താമസം മാറി അന്നേരം എൻ്റെ ഗ്യാസിൻ്റെ അഡ്രസൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ ആ അല്ല അല്ല അല്ല ഇപ്പോൾ ഞങ്ങളവിടെ നിന്ന് താമസം മാറി

എവിടുത്തെ ആദ്യം താമസിച്ച അവിടുത്തെ അഡ്രസ്സാണോ ആ അവിടുത്തെ ആ ആ അശ്വതി നിവാസ് കൈതക്കൽ പി ഒ പനവരം

ആ ആ ഇപ്പോൾ വാഴവറ്റയ്ക്ക് മാറി ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ആ ആ ആ എൻ്റെ എൻ്റെ പേരിൽത്തന്നെയായിരുന്നു ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആധാർ കാർഡ് ആധാർ കാർഡ് വേണമല്ലേ ഓക്കെ ഓക്കെ ആ ആ ആ രാവിലെ വന്നാൽ മതിയായിരിക്കുമല്ലേ ആ ഓക്കെ ഓക്കെ ശരി ശരി ആ ആ ഫോൺ നമ്പറ് പറയാം തൊണ്ണൂറ്റി മൂന്ന് എഴുപത്തി ഒമ്പത് അറുപത്തിനാല് പതിനാല് ഇരുപത്തി ഏഴ് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ